ആ ഹലോ ഇത് മറ്റേ ഈ ടൂറിസത്തിൻ്റെ ഗെയ്ഡല്ലേ ആ സാറേ ഞാൻ വിളിച്ചത് ഞങ്ങൾ വയനാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് ഫെസ്റ്റ്വെൽസും കാര്യങ്ങളൊക്കെയൊന്ന് പറയാൻ അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും കുറച്ച് താൽപ്പര്യമുണ്ട് അപ്പം അതിന് വേണ്ടി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തേ ആ ഓക്കെ ഓക്കെ ഉത്സവമാണ് ഞാൻ നോക്കുന്നത് ഈ സീതാദേവി ഇതൊക്കെ സീതാദേവി അവിടെയൊരു വയനാട്ടിലൊരു അമ്പലമില്ലേ അങ്ങനത്തെ പൊൽപ്പുള്ളി ആ ഭാഗത്ത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ എനിക്ക് ഇപ്പോൾ അർജൻറ്റ് ഒരു വർക്കെക്കെയുണ്ട് അപ്പം അതിന്റെ കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും പിന്നെ അതിനെപ്പറ്റിറ്റി കുറെ അറിയാനൊക്കെ ഭയങ്കര താൽപ്പര്യമൊക്കെയുണ്ട് അപ്പോൾ അല്ല ആ പിന്നെ അവിടെ അമ്പലത്തിൽ ഫുഡ്ഡെക്കെ ഉണ്ടാവൂലേ കുറേ പേരുടെ കൂടെയിരുന്ന് കഴിക്കാനൊക്കെ പറ്റില്ലേ ആ ഓക്കെ ഓക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ആ പറഞ്ഞൊളൂ പറഞ്ഞൊളൂ പറഞ്ഞൊളൂ ആ ഓക്കെ ഇപ്പോൾ ഉത്സവം അപ്പോൾ എത്ര ദിവസം ഉണ്ടാകും ഓക്കെ ഓക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇവിടെ മതി ഞാൻ മറ്റേ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ അമ്പലത്തിൽ നിന്ന് കഴിച്ചോളാം ആ അവടന്നറച്ച് ആ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ പിന്നെ അടുത്ത ആഴ്ച്ചയൊക്കെയായിട്ട് തന്നെ ഞാൻ വരും എനിക്ക് ഈ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം ഫോർട്ട്ലൊക്കെപ്പോയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളാം ആ ഓക്കെ സാർ ഓക്കെ എന്നാൽ ആ ഓക്കെ ടാങ്ക് യൂ